കർഷകർക്ക് അവരുടെ മൃഗങ്ങളെ ആരോഗ്യകരം അതേപോലെ തന്നെ അത് മനുഷ്യരെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തമാവണമെന്നും ഉറപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കന്നുകാലി വളർത്തലും അതുപോലെ തെരഞ്ഞെടുത്ത പ്രജനനവുമാണ് നമ്മുടെ മൃഗ സംരക്ഷണം അല്ലെങ്കില് അനിമൽ ഹസ്ബൻഡ്രീന്ന് പറയും ഇപ്പോൾ മൃഗങ്ങളുടെ ജനിതക ഗുണവും അതേപോലെ തന്നെ പെരുമാറ്റവും ആ ലാഭത്തിനായിട്ട് കൂടുതൽ വികസിപ്പിച്ചെടുക്കുന്ന മൃഗങ്ങളുടെ മാനേജ്മെൻറ്റും പരിചണം പരിചരണവുമാണ് നമ്മുടെ മൃഗ സംരക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ആ ഹാ ആ ആനിമൽ ഹസ്ബൻഡറി ധാരാളം കർഷകർ തങ്ങളുടെ ഉപജീവനത്തിനായിട്ട് എന്ത് കാട്ടുന്നു മൃഗങ്ങളെ ആശ്രയിക്കുന്നു ഇപ്പോൾ പശുക്കള് ആട് കോഴി പോത്ത് എരുമ അങ്ങനൊരുപാട് മൃഗങ്ങളെയാണ് നമ്മള് അനിമൽ ഹസ്ബൻഡ്രിയായിട്ട് നമ്മളൊരുപാട് മൃഗങ്ങളെ ഇങ്ങനെ ആശ്രയിച്ചിട്ടുണ്ട് ആ ഉയർന്ന പോഷക മൂല്യം അതുപോലെ തന്നെ പലതരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മൃഗങ്ങൾ നമുക്ക് നൽകുന്നത് ഇപ്പോൾ പാല് പശുവാണെങ്കിൽ പാല് തരും എരുമയാണെങ്കി പാല് തരും പിന്നെ കോഴിയാണെങ്കിൽ മുട്ട തരും അങ്ങനെ ഒരുപാട് വളർത്തു മൃഗങ്ങള് നമുക്ക് നമുക്കൊരുപാട് ലാഭങ്ങളുണ്ടാക്കി തരുന്നുണ്ട് നമുക്ക്

ഉയർന്ന പോഷക മൂല്യമുള്ള പലതരം ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതിലൂടെ മനുഷ്യന്മാരിലും ഒരുപാട് പുരോഗതികളുണ്ടാകുന്നു അവരും ഒരുപാട് പോഷക മൂല്യങ്ങൾ ആഹാരം കഴിച്ച് അവർക്കൊരുപാട് വൈറ്റമിൻസും ഒരുപാട് പ്രോട്ടീൻസും കിട്ടുന്നുണ്ട് അതിലൂടെ തന്നെ പിന്നെ ഭക്ഷണത്തിന് ഉയർന്ന ആവശ്യം നിറവേറ്റാനായിട്ട് നമ്മള് മൃഗങ്ങളെ എന്ത് കാട്ടുന്നു വാണിജ്യപരമായിട്ട് നമ്മളൊരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പശു പോത്ത് ആട് അങ്ങനത്തെ മൃഗങ്ങളിൽ നിന്നുള്ള പാലുൽപ്പന്നങ്ങള് പ്രോട്ടീൻ്റെ സമ്പന്നമായ ഉറവിടമാണെന്ന് പറഞ്ഞില്ലേ വൈറ്റമിൻസാണ് പ്രോട്ടീൻ്റെ സമ്പന്നമായ ഉറവിടമാണെന്നൊക്കെ പറഞ്ഞില്ലേ ആ മൃഗങ്ങള് നമുക്ക് പാല് തരുന്നതിനാൽ അവയെ നമ്മള് പാൽ മൃഗങ്ങളെന്നാണ് നമ്മള് പൊതുവെ വിളിക്കുക അപ്പോൾ പശുവിനെ ആടിനെ എരുമേനെ നമ്മള് പാൽ മൃഗങ്ങളെന്ന് വിളിക്കുക പിന്നെ പോഷക സമ്പുഷ്ടമായ ഭക്ഷണം നൽകുന്ന മറ്റൊര് കൂട്ടമാണ് നമ്മുടെ കോഴി അതുപോലെ തന്നെ താറാവ് അങ്ങനത്ത മൃഗങ്ങളൊക്കെ അവര് നമുക്കെന്താണ് തരിക മുട്ടയാണ് തരിക അതും പ്രോട്ടീൻ്റെ ഉറവിടമാണ് പിന്നെ കോഴി താറാവ് കാള പിന്നെ പന്നി ആട് അങ്ങനത്ത കുറച്ച് മൃഗങ്ങളൊക്കെ നമ്മള് മാംസത്തിനായിട്ട് വളർത്തുണ്ട് ഈ വളർത്തു മൃഗങ്ങളെ കൂടാതെ നമുക്ക് മറ്റ് പോഷക സ്രോതസ്സുണ്ട് അവ കടൽ മൃഗങ്ങളാണ് നാം കഴിക്കുന്ന സമുദ്ര വിഭവങ്ങൾക്ക് ഉയർന്ന പോഷക മൂല്യമുണ്ട് അത് നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല കൊഴുപ്പ് പ്രോട്ടീന് വൈറ്റമിന് ധാതു അങ്ങനെ കുറെ പോഷക ഉറവിടമാണ് അവ പിന്നെ എന്താ പറയുക മൃഗ സംരക്ഷണ വകുപ്പിന് കീഴിൽ മൃഗങ്ങളുടെ പരിപാലനം പ്രജനനം അങ്ങനെ പരിപാലനം മുതലായ പ്രത്യേകമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് പിന്നെ മൃഗ സംരക്ഷണം ഒരു അതൊരു വലിയൊര് വ്യവസായമാണ് മൃഗ സംരക്ഷണം വലിയൊര് വ്യവസായാണ് നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല പിന്നെ മൃഗങ്ങളെ വളർത്തുന്നതും പരിപാലിക്കുന്നതും വളർത്തുന്നതും പാർപ്പിടം മാറ്റുന്നത് ഒരു ഫാമിലോ പ്രദേശത്തോ ആണ് അവ പ്രത്യേകമെന്താണ് നമ്മള് നിർമ്മിച്ചതാണ് തൊഴുത്തുണ്ടാക്കും പിന്നെ കൂടുണ്ടാക്കും അങ്ങനൊരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പാലിൻ്റെ ദീർഘ ഉൽപ്പാദനമായി ബന്ധപ്പെട്ട് കാർഷിക സാംഗ്ച്വറിയാണത് ഡയറി ഫാർമിംഗ് എന്ന് പറയുന്ന സംഭവം അതിൽ നിന്ന് നമുക്ക് തൈര് ചീസ് വെണ്ണ ക്രീം ഇങ്ങനെ കുറെ പാലുൽപ്പന്നങ്ങള് കിട്ടാറുണ്ട്

മൃഗങ്ങളെ മൃഗങ്ങളെ രോഗങ്ങൾക്ക് അവരുടെ രോഗങ്ങളെങ്ങനെയാന്ന് വെച്ച് രോഗങ്ങള് പരിപാലിക്കല് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നമ്മളെന്തായി പതിവായി പരിശോധന നടത്ത് നടത്തുന്നുണ്ട് പിന്നെ ആരോഗ്യുള്ള മൃഗം ശാരീരികമായും മാനസികമായും സാമൂഹികമായും സുസ്ഥിരങ്ങളാണ് അവരെ നമ്മള് ഒരുപാട് ഇപ്പോൾ പശുക്കളാണെങ്കിലും അവര് നമ്മുടെ എന്നീ അസുഖങ്ങള് വന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡോക്ടറെ വിളിക്കും ഡോക്ടറ് വന്നിട്ട് കറക്റ്റ് കറക്റ്റ് സമയത്തവർക്ക് മരുന്നുകള് കൊടുക്കും നമ്മളുടെ കോഴികൾക്കോ ആടുകൾക്കെന്തേ നമ്മള് ഡോക്ടറെ വിളിക്കുകയോ ഡോക്ടറടുത്ത് പോയി അവരെ പരിപാലിക്കുകയൊക്കെ ചെയ്യും നമ്മള് ഒരുപാട് കാര്യങ്ങള് നമ്മളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അങ്ങനൊരുപാട് രോഗമുക്തമുണ്ടാക്കും അവർക്ക് കുത്തിവെപ്പ് എടുക്കാറുണ്ട് അതിൽ നിന്നവരൊരുപാട് രോഗമുക്തരാവും ആകാറുണ്ട് അങ്ങനൊരുപാട് കാര്യങ്ങളുണ്ടതില് പിന്നെ മൃഗങ്ങള് കാരണം ചില രോഗങ്ങൾ നമുക്കുണ്ടാകും ആന്ത്രാക്സ് ഇപ്പോൾ പശുക്കളിൽ നിന്നൊരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പകരാറുണ്ട് പിന്നെ പട്ടികളിൽ നമുക്കൊരുപാട് പകരാറുണ്ട് അതേ മാതിരി പക്ഷിപ്പനി അങ്ങനൊരുപാട് രോഗങ്ങള് നമുക്ക് മൃഗങ്ങളിൽ നിന്ന് പകരാറുണ്ട് അത് ഓരോ കാലാവസ്ഥയും കാലം അനുസരിച്ചുള്ള രോഗം വരെ വരാം അങ്ങ് ഒരുപാട് കാര്യങ്ങളുണ്ട്